ആ ഹലോ ആരാ സംസാരിക്കുന്നത്

ആ നമുക്ക് പിള്ളേരെ ഒക്കെ സെറ്റ് ആക്കേണ്ടേ പിള്ളേരെ അതിന് തെരഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഓരോ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പിള്ളേരെ ഒക്കെ ഒരുക്കുകയൊക്കെ ചെയ്യേണ്ടേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനി ഇപ്പോൾ അധികം സമയം ഇല്ലല്ലോ അപ്പോൾ അതിന് മുമ്പ് പിള്ളേർ ആ പിള്ളേർ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഓ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ നേരത്തെ തുടങ്ങിയാലല്ലേ പറ്റുള്ളൂ അതിന് വേണ്ടുന്ന റിഹേഴ്സലൊക്കെ നടത്തിയാലല്ലേ ഒക്കത്തുള്ളൂ

ആ ആ പരിപാടി ആ അത്

ആ ആ എല്ലാവരും കൂടെ അതേ പറ്റിയൊന്ന് ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജിതേഷിൻ്റെ കൂട്ടത്തിൽ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ലതായിട്ട് പാടുന്നവരെ തെരഞ്ഞെടുത്ത് അത് പ്രാക്റ്റീസ് ചെയ്യിക്കുകയൊക്കെ ചെയ്യാം അപ്പം നല്ല കാര്യാ എന്നിട്ട് യൂണിഫോമൊക്കെ വേടിക്കണം യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് വേണം ഇത് പാടാനൊക്കെ

ആ ആ അതെ അതൊക്കെ നമുക്ക് ഇപ്പം ആ അതിന് ഇപ്പം ഇതിനകത്ത് യൂട്യൂബിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പാട്ടുകളൊക്കെ കിട്ടുമല്ലോ പിന്നെ പിള്ളേരുടെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതുങ്ങളെ തെരഞ്ഞെടുത്ത് പിന്നെ ഇത് പ്രാക്റ്റീസൊക്കെ ചെയ്യിക്കേണ്ടതല്ലേ അപ്പം നേരത്തെ തന്നെ അവരെ സ്കൂൾ ടൈമിന് ശേഷം അവരെ നിർത്തുന്നതാ അപ്പം അവർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കും അതും നമ്മൾ സെറ്റ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും സമയം ഇനിയും പരീക്ഷയുടെ സമയം ഒക്കെ കഴിഞ്ഞ് വേണ്ടേ ഇതൊക്കെ ചെയ്യാനായിട്ട് പരീക്ഷയുടെ ആ ആ ആ ആ പ്രശ്നം ആകും എക്സാം ടൈം ആണ് അപ്പോൾ അതിനും എക്സാം ആ സമയം ഒക്കെ ആവുമ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രിപ്പറേഷനൊക്കെ ചെയ്യേണ്ടേ ആ അത് മറ്റുള്ള ടീച്ചർമാരും കൂടെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എന്ത് വേണം എന്നൊക്കെ ചെയ്യാനായിട്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ദിവസം ഒരു ക്ലാസ് ഇങ്ങനെ ശനിയാഴ്ച എങ്ങാനും നമുക്ക് പിന്നെ എല്ലാരെയും കൂടെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടുകയോ എന്താ ആണോ ഇത് ആ ആ ഏതെങ്കിലും ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ചെയ്യണം ഇപ്പോൾ ഒത്തിരി സമയം ഒന്നും ഇല്ല ഇപ്പം ജൂലൈ പതിനൊന്ന് ആയി ഇനി ഇപ്പം ആ ജൂലൈ ആഗസ്റ്റ് ഓ പതിനൊന്ന് ഒരു മാസം ഇല്ല അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കണം

ആ മറ്റുള്ള ടീച്ചർമാരും കൂടെ ആ മറ്റുള്ള ടീച്ചർമാരെയും സാറുമ്മാരെയും എല്ലാവരെയും കൂടെ കൂട്ടി തീരുമാനിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് ആകണം കേട്ടോ ഈ ആഴ്ച തന്നെ ആയില്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ

നോക്കട്ടെ നമുക്ക് ഈ ശനിയാഴ്ച ഇന്ന് വ്യാഴാഴ്ചയല്ലേ ഈ ശനിയാഴ്ച പിന്നെ ഒരു പിരീഡേ കാണോത്തുള്ളല്ലോ അത് ആ ഒന്നര ആവും അത് കഴിയുമ്പോൾ ഉള്ള സമയത്ത് പിള്ളേരെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാൻ പറ അല്ല ടീച്ചർമാർ എല്ലാവരുംകൂടെ ചെയ്യാൻ പറയാം ആ ആ ശരി ശരി ഓക്കെ ഓക്